ഞാൻ ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി ജനുവരി ഒരു പത്തൊൻപതാം തീയതി ഞാനും എൻ്റെ കുസാ എൻ്റൊരു കൂട്ടുകാരനും കൂടി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവു പോകുകയായിരുന്നു പോയി എൻ്റെ നാട്ടിൽ ഉത്സവമായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ എനിക്ക് ലൈസൻസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എൻ്റെ പുതിയ റോയൽ എൻഫീൽഡ് ബൈക്കെടുത്ത് ഞാൻ അമ്പലത്തിൽ ഉത്സവം കൂടാൻ പോകുകയും പോകുന്ന വഴിക്ക് ബ്ലോക്കായതിനാൽ ഞാൻ സൈഡിൽ കൂടി കയറുകയും ഒരു മാരുതി എയിറ്റ് ഹൺഡ്രഡ് കാർ വന്ന് എൻ്റെ ബൈക്കിനെ തട്ടുകയും ഞങ്ങൾ രണ്ട് പേരും തെറിച്ചു വീഴുകയും ചെയ്തു എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക് ദൈവമായോ അനുഗ്രഹം പോലെ എനിക്ക് ഒരു ഒന്നും പറ്റിയില്ല ഒരു പോറൽ പോലും പറ്റിയില്ല എൻ്റെ കൂട്ടുകാരനൊന്നും പറ്റിയില്ല